പറക്കുന്ന അജ്ഞാത വസ്തുക്കളെയെന്നും ഞാൻ പ്ലെയ്നല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല അത് കുട്ടിക്കാലത്ത് പ്ലെയിനിനെ കാണുമ്പോഴാണ് അജ്ഞാത വസ്തുവെന്ന് എനിക്ക് തോന്നിയിരുന്നത് പിന്ന പിന്നെയാണ് മനസിലായത് അത് പ്ലെയ്നായിരുന്നു എന്ന് അപ്പോൾ ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ളതും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിലുള്ള ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ സയൻസ് എന്ന അതിനെക്കുറിച്ചൊര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അന്യഗ്രഹ ജീവികളുണ്ട് എന്നവര് പറയുന്നുണ്ടെങ്കിൽ അതില് വിശ്വസിക്കും അല്ലെങ്കിൽ വിശ്വസിക്കില്ല